ഒന്ന് അഞ്ച് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മൂന്ന് നാല് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ട് എട്ട് രണ്ടായിരത്തി ഒന്ന് ഇരുപത്തി ഒന്ന് രണ്ട് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ട് രണ്ടല്ല പത്തൊമ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്